ശരിക്കും ഒരു എ ഐ യുഗമല്ലേ ഇനി വരാൻ പോവുന്നത് അപ്പോൾ കുട്ടികളുടെ ഭാവിയിലെ ഉത്തരവാദിത്തം എന്താണെന്നും അവരെ ഭാവിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരായി എങ്ങനെ വാർത്തെടുക്കാമെന്നും ഇനി നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ ചിലപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിരിക്കും അതിൽ നമുക്കു വലിയ റോളുകളൊന്നും ചിലപ്പോള് ഉണ്ടായി എന്നു വരില്ല അതാണ് എനിക്കു തോന്നുന്നത് കാരണം കയ്യിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലായിരിക്കും ഇനി ഭാവിയിലെ ഒരു ഭാവി തലമുറയുടെ ജീവിതവും അവൻ്റെ ഭാവിയുമെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരിക്കും അതു നിയന്ത്രിക്കുന്നത് പണ്ട് പത്രമിടുന്ന വീടുകൾ ധാരാളമായിരുന്നു ഒരു ആഢ്യത്വമായിരുന്നത് ഈ പത്രം ആ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട് എന്നു പറഞ്ഞാൽ ആ വീടൊരു ആഢ്യത്വമുള്ള വീടായിട്ടു പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലെ എല്ലാവരും ആ വാർത്തകൾ വായിക്കുമായിരുന്നു ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നു ഇന്ന് ഏതെങ്കിലും വീടുകളില് പത്രം ഇടുന്നുണ്ടോ വളരെ അപൂർവമായിട്ടല്ലേ ഉള്ളു അഥവാ ഏതെങ്കിലും വീടുകളിൽ പത്രം ഇടുന്നുണ്ട് അല്ലെങ്കില് പത്രം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ ആരൊക്കെ അതു വായിക്കുന്നുണ്ട് രാവിലെ വന്ന് ഇട്ടു അതെവിടേലും അവരുടെ ഷോ കേസിലെടുത്തു മടക്കിവച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി അതു വായിക്കുന്നുണ്ടോ വായനാശീലം ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നു പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കു മാറിപ്പോയിരിക്കുന്നു യുവതലമുറയില് അങ്ങനെയൊരു അവസ്ഥ ഒട്ടുമില്ലാണ്ടായിത്തീര്ന്നിരിക്കുന്നു ഇപ്പോള് പിന്നെ ഭാവിയിലെങ്ങനെ വാർത്ത നമുക്കിതു ശരിക്കുമൊരു ഇലക്ട്രോണിക്സ് യുഗമാണ് എ ഐ യുഗമാണ് നമ്മൾക്ക് ഞാന് പറഞ്ഞല്ലോ നമ്മുടെ കമ്പ്യൂട്ടറുകളും മൊബൈലുകളും ഇലക്ട്രോണിക് മറ്റ് മാധ്യമങ്ങളും എല്ലാമാണ് നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ നമ്മുടെ ഭാവി എങ്ങനെ മുന്നോട്ടുപോകണമെന്നു നിശ്ചയിക്കുന്നതും തീരുമാനിക്കും ഇനിയതിനു പുറകോട്ടൊരു മാറ്റം ഉണ്ടാവുകേല ഇത് ലൈബ്രറിയിൽ പോയിരുന്ന ഇപ്പോഴത്തെ പിള്ളേര് മറ്റ് എഴുത്തുകാരുടെയോ നോവല് വായിക്കാനോ അവരുടെ ജീവചരിത്രമെന്താണെന്നു തിരയാനോ ആ ജീവിതത്തിൻ്റെ ഏടുകൾ നല്ല വശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടു മുന്നോട്ടുപോകാനും ഒന്നും തയ്യാറാകുന്നൊരു തലമുറയല്ല ഇനിയുള്ളതും വരാൻ പോകുന്നതും അപ്പോൾ നമ്മൾ എങ്ങനെ പൗരന്മാരെ ഉത്തമരായിത്തീർക്കാം അല്ലെങ്കിൽ വാർത്തയിൽ പ്രാധാന്യമുള്ളവരായി മാറ്റാം എന്ന് ഉള്ളതിൻ്റെ അവസാനം ഒരു വാക്കെനിക്കു തോന്നുന്നു നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം കുട്ടികളിൽ കുറയ്ക്കണം കുറയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം നമുക്ക് മൊബൈലിപ്പോൾ ആവശ്യമാണ് നമുക്ക് കോള് ചെയ്യാൻ വേണം നെറ്റുപയോഗിക്കാൻ വേണം മറ്റ് വാർത്തകളറിയാൻ വേണം യു ട്യൂബ് നോക്കാന് വേണം ഇൻസ്റ്റാഗ്രാം വേണം ഇങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾക്കിപ്പോൾ യുവതലമുറയ്ക്ക് ഈ മൊബൈലില്ലാതെ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പുകള് കമ്പ്യൂട്ടറുകള് ഇല്ലാതെ സാധിക്കേലാ അപ്പോളിത് ഒഴിച്ചുകൂടാൻ നമുക്കു മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല പക്ഷെ ഇതിൻ്റെ ഉപയോഗം ദുരൂപയോഗമായി മാറുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങള് ഈ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കാം നമ്മുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകള് ഉപയോഗിക്കാം അതില് ധാരാളം വാർത്തകളറിയാൻ പറ്റും ലോകത്തെക്കുറിച്ചറിയാൻ പറ്റും ലോകത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചറിയാൻ പറ്റും നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം നമുക്കതിൽ പറയാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമുക്കു വേണ്ട ഏതൊരു ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ആണേലും വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നു യുവതലമുറയെ പഠിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അത് ഒരു തെറ്റായ മാർഗ്ഗമായി ഒരിക്കലും മൊബൈല് മാറുകയില്ല മൊബൈലുകളുടെ ദുരുപയോഗമാണ് അതായത് ദുരുപയോഗം എന്നു പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തെല്ലാം നമുക്ക് അറിയാം കേള്ക്കാം എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് സേർച്ചെയ്യാം ഇപ്പോൾ പല കാര്യങ്ങളും പല കൊലപാതകങ്ങളും പല മോഷണങ്ങളോ അല്ലേ അങ്ങനെയുള്ള എന്തു കാര്യങ്ങളും ലഹരി വസ്തുക്കളെക്കുറിച്ചാണ് എന്ത് ലോകത്തിലെന്തു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സേർച്ചെയ്യാൻ മൊബൈലില് സാധിക്കും അപ്പോൾ മൊബൈല് അതൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ക്രിമിനൽ മാർഗമായിട്ടോ അല്ലെങ്കിലൊരു ക്രൈമിനെ പറ്റിയൊരുപാടു കാര്യങ്ങൾക്കുള്ളൊരു മാർഗ്ഗമായിട്ടോ ഒക്കെ മൊബൈലിനെ മാറ്റാം പക്ഷെ അതിനേക്കാളുപരി നല്ലൊരു മാർഗ്ഗമായിട്ടും മാറ്റാൻ സാധിക്കും പക്ഷെ അങ്ങനെയൊരു സാഹചര്യത്തിലേക്കു നമ്മുടെ യുവതലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്